രാജാ രജി രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്ട്സ്ന്ന് പറയുന്ന ഒരു സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്ഥിതി ചെയ്യുന്നതെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മൾടെ സ എൻ്റെ ഒര് അടുത്ത സമീപ പ്രദേശമായ മാവേലിക്കരയാണ് അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ സ്ക്ളപ്ചർ ആർട്സിലും പൈൻറ്റിങ്ങിലും ഫൈൻ ആർട്സിലും കൂടെയുള്ള നിരവധി കോഴ്സുകൾ ഈ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഇത് ഒരു അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നേന്ന് വെച്ച് കഴിഞ്ഞാ കേരള യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേഷൻന്നുള്ളൊരു സ്ഥാപനമാണ് ഇത് കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനം കൂടിയാണ് ഈ കോളേജ് സ്ഥാപിച്ചിരിക്കുന്നത് സ്ഥാപിച്ചത് അതായത് സ്ഥാപിച്ചത് രാ രാമവർമ്മ അതായത് രാജാ രവിവർമ്മയുടെ മകനായ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു ട്രൈനിങ് ഇൻസ്റ്റിട്യൂട്ട് മാവേലിക്കരയിൽ സ്ഥാപിച്ചത് എങ്കിലും ഇതൊരു സർക്ക് ഒരു ഒരു സർക്കാർ സ്ഥാപനമായൊരു സർക്കാർ ഇൻസ്റ്റിറ്റിയൂഷനായി മാറിയത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ്